ഇല്ല ഇല്ല അങ്ങനെ കൊതുക് ശല്യമൊന്നുല്ല ഇവിടെ ഇല്ല പനിയൊന്നുല്ലിപ്പോൾ പനിയൊന്നും അങ്ങനില്ലപ്പോൾ പനി ഉണ്ടാവുമ്പെന്തെങ്കും ഗുളികകളെന്തെങ്കിലൊക്കെ കഴിക്കും വീട്ടിൽ ഞാനും കുട്ട്യേളും മരുമോളും പേരക്കുട്ടികളും വിറ്റാമിൻ ഗുളിക എന്തെങ്കിലുമുണ്ടോ അല്ലാതെ വേറെന്തെങ്കിലും പ്രതിവിധികൾ പനീൻ്റെ ഗുളികേം കയ്യിലില്ലല്ലോ